മലയാളത്തിലെ ഭാഷാഭേദങ്ങളെന്ന് പറയുന്നത് മലയാളഭാഷക്ക് ഒരുപാട് ശൈലികളിലാണ് മലയാളഭാഷ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഭാഷ എന്ന് പറയുന്നത് മലയാളഭാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നോ ചുറ്റുപാടുമുള്ള ഭൂപ്രകൃതിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള ശൈലിക്ക് മാറ്റം സംഭവിക്കുന്നു ഇന്ന സ്ഥലത്ത് സംസാരിക്കുന്ന ഭാഷ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് സംസാരിക്കുന്നില്ല ഇന്ന സ്ഥലത്ത് സംസാരിക്കുന്ന ഭാഷ മറ്റൊരു സ്ഥലങ്ങളിൽ എത്തുമ്പം അതിൻ്റെ അർഥങ്ങൾ മാറുന്നു അതിൻ്റെ സംസാരരീതി മാറുന്നു അതൊക്കെയാണ് ഭാഷ ഭേദങ്ങൾ എന്ന് പറയുന്നത് മലയാളഭാഷക്ക് ഒരുപാട് ഭേദങ്ങളുണ്ട് ഓരോ പതിനാല് ജില്ലകളിലും പതിനാല് ഭാഷ ഭാഷാശൈലിയിലാണ് മലയാളം പ്രയോഗിച്ച് കൊണ്ടിരിക്കുന്നത് അതിൽ കണ്ണൂർ കണ്ണൂർ ഭാഷയാണെങ്കിൽ തന്നെ കണ്ണൂർ ഭാഷയുടെ നേരെ മറിച്ചാണ് കാസർകോട് ഭാഷാസംസാരിക്കുന്നത് അതാണ് ഭാഷാഭേദം എന്ന് പറയുന്നത്